യാത്രയിൽ പരിഹാരം കാണാൻ വിഷമമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നു പറയുന്നത് റോഡ് തന്നെയാണ് ഉപയോഗശൂന്യമായ ഇന്ന് തീർത്തും പറയാൻ സാധിക്കുന്ന ഒരു റോഡാണ് എൻ്റെ നാട്ടിലൂടെ ഇപ്പോൾ ഉള്ളത് പുനരുദ്ധാരണം നടത്താതെ കുണ്ടും കുഴിയുമായാണ് ഈ റോഡുകൾ ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ വഴി ബസ്സുകൾ പോലും ഇപ്പോൾ ഓടുന്നില്ല കാരണം ബസ്സുകൾ ഓടിക്കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ ബസ്സുകൾക്ക് വേണ്ടിയിട്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും മാത്രമായ ചിലവുകൾ നീങ്ങിനിൽക്കും എന്ന ഭയത്താലാണ് ഈ വഴി റോഡ് നന്നാക്കി കഴിഞ്ഞാൽ ബസ്സുകളും ട്രെയിനും കയറും പാളവും ഉണ്ടാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്കത് കൂടുതൽ ഉപകാരപ്പെടുന്നത് ആയിരിക്കും